പതിനായിരം രൂപയിൽ താഴെ ആ നിങ്ങൾ ഏതു കമ്പനിയുടെ ഫോണാണ് നോക്കുന്നത് ആ അപ്പോൾ റിയൽമിയുടെ ഫോണായാലോ പ്രത്യേകത പറയുവാണെങ്കിൽ ഇതിനിപ്പം ആറ് ജി ബി റാമുണ്ട് വൺ ട്വൻറി ജി ബിയുടെ ഇന്റെർണൽ മെമ്മറിയും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അപ്പം പതിനായിരം രൂപയുടെ താഴെയെന്നുപറഞ്ഞാൽ വൺ ട്വൻറി ജി ബി കിട്ടാൻ ഭയങ്കര പാടാണ് മ് പിന്നെ ഫിംഗർ പ്രിൻറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോണിൽ റിയൽമി സി തേർട്ടീൻ ഫിക്സ് ചെയ്യാമോ അപ്പം ക്യാമറയും കാര്യങ്ങളൊന്നും അറിയേണ്ടേ ആ ഇതിന് അറുപത്തിനാല് എം ബീടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ഒരു രണ്ട് എം ബീടെ ഡെപ്തുണ്ട് പിന്നെ ഒരു എട്ട് എം ബീടെ അൾട്രാ വൈഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെപ്പറയുവാണെങ്കിൽ ആ ഫൈവ് ജി ഫോണാണ് ഏഴു ബാൻഡും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ആ പിന്നെ ക്വാഡ് കോംബിൻ്റെ പ്രൊസസ്സറാണ് വരുന്നത് വരുന്നത് ഏ വേറെ പറയുവാണെങ്കിൽ റെഡ്മീ ലവനും കാര്യങ്ങളുണ്ട് റെഡ്മീ ലവൻ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ടൂ ഇയറിൻ്റെ എക്സ്ടെൻഡഡ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് സാംസങ് പത്തു രൂപയിൽത്താഴെ കുറവാണ് നിങ്ങളൊരു രണ്ടായിരം രൂപയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തൊരു പന്ത്രണ്ടുരൂപ നോക്കേണ്ടിവരും അപ്പം ഏ ട്വൽവ് സീരീസും കാര്യങ്ങളൊക്കെയുണ്ട് എന്താണ് ആ റിയൽമിയുടെ റിയൽമി സി തേർട്ടീൻ ആണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് റെഡ്മീ റെഡ്മിയാവുമ്പോൾ അതിന് വാറണ്ടി രണ്ടുവർഷം എക്സ്ട്രാ കിട്ടുന്നുണ്ട് ഓഫർ ആണെങ്കിൽ രണ്ടുമാസം മുമ്പായിരുന്നെങ്കിൽ ഓണത്തിൻറെ ഓഫറും കാര്യങ്ങളൊക്കെ തരാമായിരുന്നു ഇനിയിപ്പം നിങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് അതായത് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞുവരുവാണെങ്കിൽ ഇതിനെല്ലാം ഒരു ആയിരത്തഞ്ഞൂറു രൂപ രണ്ടായിരം രൂപയുടെ ഓഫർ കിട്ടുന്നതായിരിക്കും അപ്പം ആ സമയത്ത് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എട്ടു രൂപയ്ക്ക് എടുക്കാവുന്നതായിരിക്കും നിലവിലെ ഫോണിൻറെ പ്രൈസെന്നു പറഞ്ഞുകഴിഞ്ഞാൽ പതിനാ പതിനായിരത്തി ഒരുന്നൂറു രൂപയാണ് അപ്പം എല്ലാം ടാക്സെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും ഒരു പതിനഞ്ചു പതിനായിരത്തിഅഞ്ഞൂറുരൂപയാകും അപ്പോൾ നിങ്ങൾക്ക് ഓഫറിൽ ഒരു അഞ്ഞൂറുരൂപ കുറച്ചുതരാം പതിനായിരം രൂപ ഫോണിൻറെ കൂടെയെന്നു പറഞ്ഞുകഴിയുമ്പോഴത്തേനും പതിനെട്ടു വാട്ടിൻ്റെ ഒരു ചാർജർ കിട്ടുന്നുണ്ട് അതുപോലെ ടീ പി യു കേസും പിന്നെ സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഒട്ടിച്ചാണ് വരുന്നത് ആ അത്രേം കാര്യങ്ങളാണ് ഇപ്പം ഫോണിൻറെ കൂടെ വരുന്നത്

ഗിഫ്റ്റ് ഗിഫ്റ്റ് നിങ്ങൾക്ക് ക്രിസ്മസിൻറെ സമയത്തു മേടിക്കുവാണെങ്കിൽ ഗിഫ്റ്റ് കിട്ടും ഇപ്പോൾ ഓഫറും കാര്യങ്ങളുമൊന്നും ഇല്ല ആ അപ്പം നിങ്ങൾക്ക് മേടിക്കാൻ താൽപ്പര്യം ഉണ്ടോ ഈ എം ഐ സ്കീമെന്നു പറഞ്ഞുകഴിയുമ്പോൾ രണ്ടുവർഷത്തെ സ്കീമുമുണ്ട് മൂന്നുവർഷത്തെ സ്കീമുമുണ്ട് അപ്പം മാസം അഞ്ഞൂറ് വെച്ചടക്കുന്ന സ്കീമാണ് മൂന്നുവർഷത്തെ സ്കീമെന്നുപറഞ്ഞാൽ അറുന്നൂറു രൂപ വെച്ചടക്കുവാണെങ്കിൽ രണ്ടുവർഷം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പം രണ്ടായിരം രൂപ എക്സ്ട്രാ വരും ഈ എം ഐ അടച്ചുവരുമ്പോൾ ടാക്സ് കൂട്ടി ആ നാളെ വന്നു മേടിക്കാം